മലയാളഭാഷ എന്ന് പറയുമ്പോൾ തന്നെ മലയാള ഭാഷ ഉർ ഉരുത്തിരിഞ്ഞത് കുറെയധികം ഭാഷയിൽ നിന്നാണ് അപ്പോൾ മലയാളഭാഷയിലെ ഇപ്പം നമ്മുടെ ഉപയോഗിക്കുന്ന ഭാഷയിലെ അതിൽ കുറെ അധികം മറ്റ് ഭാഷകളിൽ നിന്നും ഉപയോഗിക്കുന്ന കുറേ വാക്കുകൾ ഉണ്ടാകും ഇപ്പോൾ സംസ്കൃതത്തിൽ നിന്ന് കുറേ വാക്കുകൾ ഉണ്ട് തമിഴ് തമിഴ് ലാംഗ്വേജ് അല്ലെങ്കിൽ തമിഴ് ഭാഷയിൽ നിന്ന് തമിഴ്ന്ന് ഉറുദൂന്ന് അതുപോലെ ജപ്പ അതുപോലെ മറ്റേ ജർ ജർമ ലാംഗ്വേജിൽ നിന്നുണ്ടാകും ഫ്രഞ്ചിൽ നിന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ലാംഗ്വേജ് ഒരിക്കലും ഒരു മലയാള ഭാഷയെന്ന് പറയണത് കറക്റ്റ് ആയിട്ടുള്ള മലയാളം അല്ല ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഷകളും നമ്മൾ കൂട്ടിയിണക്കിയിട്ടാണ് ഇപ്പം മലയാളഭാഷയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ മലയാളഭാഷയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയെ കാട്ടിലും ഒരുപാട് വ്യത്യസ്തകൾ നിറഞ്ഞിട്ടുണ്ടാകും അതുപോലെ സംസ്കൃതം മെയിൻ ആയിട്ട് നമ്മൾ മലയാളം ഉ ഉരിതിരിഞ്ഞെന്ന് പറയണത് സംസ്കൃത ഭാഷയായിട്ടാണ് പു പണ്ടു കാലത്ത് അധികം സംസ്കൃത ഭാഷയാണ് ഉണ്ടായിരുന്നത് എല്ലാവരും സംസ്കൃതമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വേദങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കണെ അതിൽ നിന്ന് നമ്മൾ എല്ലാ മലയാളഭാഷയിലേക്ക് ആക്കുമ്പോൾ കുറച്ച് അതിൻ്റെ നല്ല അതിൻ്റെ സംസ്കൃത ഭാഷയുടെ നല്ല സ്വാധീനമുണ്ട് അതുപോലെ ഇംഗ്ലീഷ് ഭാഷയായാലും ഇംഗ്ലീഷ് ഭാഷയെന്ന് പറയുന്നതിനു മുമ്പ് നമ്മുടെ ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടൻ ലാംഗ്വേജ് ആയിട്ട് നോക്കുമ്പോൾ അവർ നമ്മുടെ മലയാള ലാംഗ്വേജ് കുറച്ച് അധികം ഉപകാരം ചെയ്തിട്ടുണ്ട് അവരുടെയും കുറേ സ്വാധീനം നമ്മുടെ മലയാളഭാഷയിലും നമുക്ക് കണ്ടു വരാൻ പറ്റുന്നുണ്ട് അതുപോലെതന്നെ തമിഴ് തമിഴ് ഭാഷ തമിഴ് ആണ് ഏറ്റവും ആദ്യത്തെ ശ്രേഷ്ഠ് ഭാഷയായിട്ട് ഭാരതത്തിൽ നമ്മൾ ഇപ്പോൾ കൽ കൽപ്പിച്ചു കിട്ടിയിരിക്കുന്നത് തമിഴ് രണ്ടാമത്തെ മൂന്നാമത്തെ ആ ആദ്യത്തെ അല്ല രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു രണ്ടാമത്തെ ബ സർവ്വ ശ്രേഷ്ഠ ഭാഷയാണ് തമിഴ് അപ്പോൾ അവർ അതിന് നമുക്ക് സംസ്കൃതം അതുപോലെ തമിഴ് ഇംഗ്ലീഷ് എല്ലാ ഭാഷകളിൽ നിന്നും എല്ലാ ഭാഷകളോടും മലയാളം മലയാളഭാഷ കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണേ നമുക്ക് പറയാൻ പറ്റും കാരണം എല്ലാ ഭാഷകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഭാഷയാണ് അപ്പോൾ നമുക്ക് മലയാള ഭാഷ എന്നാൽ മലയാള ഭാഷ ഇവരിൽ നിന്ന് എല്ലാ ഭാഷകളിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒക്കെ കോ കുറച്ച് ഇരുപത്തിയാറ് അക്ഷരമുള്ളു പക്ഷേ മലയാളത്തിൽ അങ്ങനെ അല്ല അൻപത്തി ഒന്ന് അക്ഷരം ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കു ഈ ആൻപത്തിഒന്ന് അക്ഷരം കൂട്ടി ഉണ്ടാക്കുന്ന കുറെയധികം വാക്കുകൾ അതിന് അനേകായിരം അർത്ഥങ്ങളും കാര്യങ്ങൾ ഒരു വാക്കിന് തന്നെ ചില സമയത്ത് രണ്ടുമൂന്ന് അർത്ഥങ്ങൾ വരും അപ്പോൾ അങ്ങനെ നോക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷ ഭയങ്കര ശ്രേഷ്ഠമായ ഒരു ഭാഷ തന്നെയാണ് പിന്നെ അത് ചില സമയത്ത് നമുക്ക് മലയാളികൾക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതു ഭാഷയും പഠിക്കാൻ പറ്റും മലയാളം പഠിച്ച ആൾക്ക് വേറെ ഭാഷകളൊക്കെ പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും അതേ മറിച്ച് മലയാളഭാഷ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ വേറെ ഭാഷകളെ കമ്പെ താരതമ്യം ചെയ്യുമ്പോൾ മലയാളഭാഷകളുടെ അക്ഷരം കുറച്ചു കട്ടിയുള്ളതുപോലെയാണ് നമുക്ക് ഫീല് ചെയ്യാറ് അതായത് മലയാളികൾക്ക് ബാക്കി എല്ലാ ഭാഷകളും പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും എന്ന് എന്നാൽ ബാക്കിയുള്ളവർക്ക് പഠിക്കാൻ എളുപ്പ എളുപ്പമാണ് എന്നാൽ പക്ഷേ കുറച്ചു ബുദ്ധിമുട്ടുണ്ടാവും അതില് നമുക്കൊരു മനസ്സുവെച്ചാൽ കൂടെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും എല്ലാ ഭാഷകളും നല്ല കുറച്ച് മലയാളഭാഷയെ വെച്ച് നോക്കുമ്പോൾ ബാക്കി എല്ലാ ഭാഷകളും നമുക്ക് കുറച്ച് എളുപ്പമാണ് കാരണമെന്ത് വെച്ചുകഴിഞ്ഞാൽ ഇവരിൽനിന്ന് എല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് കൊണ്ട് മലയാളഭാഷ പഠിച്ച ആൾക്ക് സിമ്പിൾ ആയിട്ട് ബാക്കി എല്ലാ ഭാഷയും പഠിക്കാനും പറ്റും അപ്പോൾ അങ്ങനെ നോക്കുകയാണെ എല്ലാ ഭാഷകളിൽ നിന്നും ഉരി തിരിഞ്ഞു വന്നു കൊണ്ട് ഈ നമ്മുടെ മലയാള ഭാഷ മലയാളഭാഷയെ എല്ലാ ഭാഷയും നല്ല വളരെ വ്യക്തമായ രീതിയിൽ സ്വാധീനിച്ചിട്ടുമുണ്ട്